ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികളുടെ ജീവിതത്തെ വളരെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ ഓൺലൈനായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്നു പറയുമ്പം കുട്ടികൾക്ക് മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം അവിടെ ഇല്ലാതാകുന്നു അപ്പം അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടെന്ന് പറയുമ്പം ഒരു വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരു കൈൻഡ് ഓഫ് വിദ്യാഭ്യാസമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പം അതിപ്പം ഈ എങ്ങനെയാണ് കൂടുതൽ പോപ്പുലറായി വന്നതിട്ടുള്ളതെന്നു വെച്ചാൽ കോവിഡിൻ്റെ വരവോടു കൂടിയാണ് അപ്പം ഈ കോവിഡ് വന്നതോടെ പല കാര്യങ്ങളിലും മനുഷ്യർ ഒതുങ്ങേണ്ടി വന്നു ഇപ്പം പുറത്തു പോകുന്ന കാര്യങ്ങളാണെങ്കിലും പോലും അപ്പം അതു പോലെത്തന്നെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം നമ്മളുടെ വീട്ടിലെ ഏതെങ്കിലും മുറിയിലെ നാല് ചുമരിലേക്ക് ഒതുങ്ങിപ്പോയി അതിലൂടെ കുട്ടികൾക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ ലഭിക്കുന്ന അങ്ങനൊരു പരിപാടി തന്നെ ഇല്ലാണ്ടായിപ്പോയി കുട്ടികൾ അവരുടേതായ ആ മൊബൈൽ ഫോൺ എന്ന ഒരു ഇതിലേക്ക് ഒതുങ്ങിപ്പോയി അത് കുട്ടികൾക്ക് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് എങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ മറക്കുന്നു കാരണം എന്താ അവർ ഇടപഴകാൻ പറ്റുന്നില്ല കാരണം അവർക്ക് കൊറോണയുടേ ഇതൊക്കെ കാരണം അന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു അവർ ഗെയിമും കളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തൊറ്റെക്കിരുന്ന് അങ്ങനെയായി പോയായിരുന്നു അതു കുട്ടികൾക്ക് ഒരുപാട് ദോഷം ചെയ്യും കാരണം എന്താ അവർക്ക് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല കുട്ടികൾ തമ്മിൽ ഇടപഴകുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അവരെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചറിയും അവരെ വഴക്കുണ്ടാക്കും അവരെ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കു വെയ്ക്കും അല്ലെങ്കിൽ ഷെയറിങ് എന്താണെന്ന് പഠിക്കും കെയറിങ് എന്താണെന്ന് പഠിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അതൊക്കെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഇത് കാര സമ്പ്രദായം കാരണം കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം കോവിഡൊക്കെ മാറി ഓൺലൈൻ ഇത് കുറഞ്ഞെങ്കിലും അതിൻ്റൊക്കെ എഫക്ട്സ് ഇപ്പോഴും കുട്ടികളിലുണ്ട് കുട്ടികൾക്ക് ഇപ്പം മറ്റു കുട്ടികളോട് മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴസണലായിട്ട് തന്നെ അറിയാം എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോടൊക്കെ മിണ്ടി കൊണ്ടിരുന്ന ഒരുപാട് പേര് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ശേഷം അവർക്കൊന്നും മിണ്ടാനൊക്കെ മടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതു പിന്നെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പിന്നെ അല്ലാതെ കൂടി നിന്ന് മാറി മാറി എങ്കിലും അതിൻ്റെയൊക്കെ ചില ആഫ്റ്റർ എഫക്ട്സ് ഞാനിപ്പോഴും കാണുന്നുണ്ട് അപ്പം വളരെ നല്ല രീതിക്കു തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം പരിശീലനവും കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതൊരു മോശമായിട്ടുള്ള രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് സ്വാധീ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ അവർ നല്ല അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ അതായത് ഇപ്പം ഓൺലൈൻ ഇതെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സൊന്നു ഓൺലൈനായിട്ട് എന്തെങ്കിലും എഫേർട്ട് ഇട്ട് പഠിപ്പിക്കാൻ പറ്റും അത് അതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷേ അപ്പം കുട്ടികൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ അപ്പം ഒരുപാട് എഫർട്ട് ഇടാൻ തുടങ്ങും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതവർ നല്ല രീതിക്ക് വരും കാലങ്ങളിൽ പല പല പല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ അവർക്ക് കൂടുതൽ എഫേർട്ട് ഇടുമ്പം അത് എളുപ്പമാക്കി കൊടുക്കും കാരണം അവർക്ക് ഓൾറെഡി പരിചയമുണ്ട് ഇങ്ങനെ ഒരുപാട് എഫേർട്ടിട്ട് പഠിച്ച് അപ്പം അത് കുട്ടികളെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് വളരെ നല്ല രീതിക്കും എടുത്തവരുണ്ട് പക്ഷെ അതേ സമയം അതിനേക്കാളും കൂടുതലും കുട്ടികൾ ഇതേ സമയം ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയത്താണെങ്കിൽ പോലും ഉറങ്ങുകയും കാരണം ടീച്ചർ ടീച്ചറന്മാർക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് എത്ര എന്തേരെ അവരെ ഇപ്പം പിടിച്ചു നിർത്താൻ പറ്റും ഓൺലൈനല്ലേ കാരണം കുട്ടികൾ കുട്ടികളുടെ വീട്ടിലായിരിക്കുന്നത് അപ്പം കുട്ടികൾക്ക് എന്തു വേണെങ്കിലും കാണിക്കാം അവർ അറിയുന്നില്ല ഉം അപ്പം അതു കൊണ്ട് തന്നെ ഇത് മോശമായിട്ടും ബാധിച്ചിട്ടുണ്ട് നല്ല രീതിക്കും ബാധിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതലും മോശമായിട്ടുള്ള സ്വാധീനമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ കുട്ടികൾ ആൾക്കാരോടെ ഇടപഴകാൻ മറക്കുന്നു പിന്നെ കുട്ടികൾ ഫോണിലേക്കൊതുങ്ങി പോകുന്നു ഫോൺ അഡിക്ഷനൊക്കെ വളരെയധികം കൂടുകയാണ് കാരണം ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഫോണിൻ്റെ ആവശ്യകതയുണ്ട് അപ്പം ഫോൺ മുഴുവനായും കുട്ടികളുടെ കൈയിലേക്ക് കൊടുത്തു അപ്പം കുട്ടികൾക്കിത് അഡൽറ്റ്സ് അല്ലല്ലോ അപ്പം അവരുടെ അവരുടെ മനസ്സെന്നു പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് കുഞ്ഞു മനസ്സല്ലേ അപ്പം അത് പല പല പല കാര്യങ്ങളിലേക്കും ഡിസ്ട്രാക്റ്റഡായി പോകും എപ്പോഴും അപ്പം ഫോണിൽ പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ എന്താ ഇപ്പം എൻറ്റർടെയ്ൻമെൻറ്റുകളാണെങ്കിലും ഒരുപാടുണ്ട് അപ്പം കുട്ടികളൊക്കെ അതിൻ്റെ പുറകെ പോകും അപ്പം അവരുടെ പഠനത്തെ അത് നല്ല നല്ല രീതിക്ക് ബാധിക്കും അപ്പം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അത്രയും കാലം പഠിക്കാതെ ഇരിക്കുന്ന കുട്ടികൾ വരെയുണ്ട് അങ്ങനെ പഠിക്കാതിരുന്ന കുട്ടികൾക്ക് പഠനം എങ്ങനെയാണെന്നുള്ള ആ സംഭവം മറന്നു പോയിട്ടുള്ള കുട്ടികൾ വരെയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കത് ഭാവി ഭയങ്കര ദോഷം ചെയ്യും കാരണം അവരുടെ ഫ്യൂച്ചറാണവിടെ പണി കിട്ടി ഇരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചറിൽ അവർ പഠനമില്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഫോണിൽ മാത്രം ഒതുങ്ങി പോയാൽ ഫ്യൂച്ചറിൽ ജീവിക്കാൻ പറ്റുമോ ഒരു കുടുംബം ഉണ്ടായി കഴിഞ്ഞാൽ ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്ന അവർക്ക് ആ ഇത് ജീവിക്കാൻ പറ്റുമോ ഇല്ല ജീവിക്കാൻ പറ്റുന്നില്ല കാരണം എജ്യൂക്കേഷൻ വേണം ഒരു ഇമ്പോർട്ടൻറ്റാണ് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫാക്ടർ അതില്ലാതെ ജീവിക്കുന്നത് അത് ഭയങ്കരം മോശമാണ്